നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും സ്കൂളുകൾ തമ്മിലുള്ള അന്തരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻറ്റൊരു അഭിപ്രായത്തിൽ നഗരങ്ങളിൽ താമസിക്കുന്ന ഒരു പകുതിയിൽ അധികം കുട്ടികളും എയ്ഡഡ് എയ്ഡഡ് സ്കൂളുകളെയോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകളെയോ ആണ് ആശ്രയിക്കുന്നത് എൻ്റെ അഭിപ്രായം മാത്രമാണ് ഗ്രാമങ്ങളിലുള്ള കുട്ടികൾ കൂടുതലായിട്ടാശ്രയിക്കുന്നത് ഗ്രാമങ്ങളിലുള്ള സർക്കാർ സ്ഥാപനങ്ങളെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നഗരത്തിലെയും അതിനുള്ള പ്രധാന കാരണമെന്നു ചോദിക്കുമ്പോൾ നഗര ഗ്രാമങ്ങളെ അപേക്ഷിച്ച് നഗരങ്ങളിലാണ് പ്രൈവറ്റ് സ്കൂളുകളും കൂടുതലായിട്ടുള്ളത് അതുപോലെ ഗ്രാമത്തെ അപേക്ഷിച്ച് നഗരങ്ങളിൽ ഗവണ്മെൻറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച് ഗ്രാ ഗ്രാമങ്ങളിൽ പ്രൈവറ്റ്സ്കൂ ളുകളുടെ എണ്ണം കുറവാണ് കുട്ടികൾ കൂടുതലായിട്ട്

ഗവണ്മെൻറ്റ് സ്ഥാപനങ്ങളെ ആ ആശ്രയിക്കുന്നു അന്നേരം അതിനുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം ആണെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് നഗരങ്ങളിൽ താമസിക്കുന്ന കുട്ടികളെല്ലാം സ്കൂൾ ബസ്സുകളിൽ യ യ യാത്ര ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകളെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നവരായിരിക്കും നഗ ഗ്രാമങ്ങളിലെ കുട്ടികൾ കൂടുതലായിട്ട് കാൽ നടയായിരിക്കും അവർ കൂട്ടം ചേർന്ന് ഒരുപാട് സു സുഹൃത്തുക്കളുമായി കൂട്ടം ചേർന്ന് കാൽ നടയായിട്ടായിരിക്കും സ്കൂളുകളിലേക്ക് പോകുന്നത്